ഞാൻ ഇയ്യിടെ ഓൺലൈൻ ആയിട്ട് ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ബാഗ് എന്നുപറയുന്നത് അവരവിടെ ഓൺലൈനിൽ തന്ന ഫോട്ടോ അത് കണ്ടിട്ടാണ് എനിക്കിഷ്ടപ്പെട്ടത് ആ ഫോട്ടോയിനെക്കാളും പ്രൊഡക്റ്റ് എൻ്റെ കൈയിൽക്കിട്ടിയപ്പോൾ വളരെ മനോഹരമായ ഇതായിരുന്നു നല്ല പ്രൊഡക്റ്റാണ് നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ ഓർഡർ ചെയ്ത അതേ കളർ അതേ സാധനം പിന്നെ നല്ല പ്രൊഡക്റ്റാണെന്ന് നമുക്ക് കണ്ടാൽത്തന്നെ മനസ്സിലാകും അങ്ങനെ വളരെ മനോഹരമായ ഒരു സാധനമാണ് അവരെനിക്ക് ഇങ്ങോട്ട് കൊണ്ടുതന്നിരിക്കുന്നത് അതിൽ ഒരു മോശവും പറയാനില്ല നല്ല പ്രൊഡക്റ്റായിരുന്നു പിന്നെ സാധാരണ എവിടുന്നെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെയെങ്കിൽ ഇതെന്നുപറഞ്ഞാൽ നല്ല പ്രൊഡക്റ്റായിരുന്നു ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പ്രൊഡക്റ്റ്